ആ ചേച്ചി വരൂ എന്താ വേണ്ടത് ഏതൊക്കെ പൂവാണ് വേണ്ടത് ആ ചെറിയ പൂക്കളാണോ വലിയ പൂക്കളാണോ ആ കുടുംബശ്രീ യൂണിറ്റില് പരിപാടിക്ക് ആണല്ലെ നിറയെ പൂക്കള് വേണമല്ലേ ആ ആ ഏതൊക്കെ പൂവാണ് വേണ്ടത് ചെണ്ടുമല്ലി ഇപ്പം നമുക്ക് രണ്ട് കളർ ഉണ്ട് ചെണ്ടുമല്ലി മഞ്ഞ ഉണ്ട് ഓറഞ്ചും ഉണ്ട് പിന്നെ വാടാമല്ലി ഉണ്ട് അരളി ഉണ്ട് ജമന്തി ഉണ്ട് റോസ് ഉണ്ട് വലിയ റോസ് അത് പീസ് ആണ് ഒരെണ്ണത്തിന് ഇരുപത് രൂപ ആ പിന്നെ താമര ഉണ്ട് ആ വലിയ റോസ് അത് നമ്മള് അങ്ങനെ ഇപ്പോൾ എല്ലാ കുടുംബശ്രീ എല്ലാ ചേച്ചിമാർക്കും തലയിൽ വെക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്ത പൂവാണ് വലിയ റോസ് ആ പിന്നെ ഒര് കുട്ടി കുട്ടി റോസ് ചെറുതുണ്ട് ഇതാ ഈ കാണുന്നത് ആ ആ അല്ല ഓരോ പൂവിനും ഓരോ റേയ്റ്റ് ആണ് ഇപ്പം നമുക്ക് തെച്ചി ആ ഇപ്പം നമുക്ക് ചെണ്ടുമല്ലിക്ക് ആണെങ്കിൽ കിലോ ഇരുന്നൂറ് രൂപ ആണ് ഇപ്പോൾ ആ ഒരു കിലോ പൂവിന് ഇപ്പോൾ ഭയങ്കര വില കൂടുതലാണ് നമുക്ക് ഇപ്പം കോയമ്പത്തൂര് നിന്ന് ഒക്കെ ആണ് പൂ വരുന്നത് അപ്പോൾ മറ്റ് കടകളില് നമ്മള് നോക്കി നോക്ക് ആ കടയിൽ പോയി ചോദിച്ച് പറ ഇരുന്നൂറ്റമ്പത് രൂപയായിരിക്കും നമ്മള് ഡയറക്റ്റ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്നിച്ച് എടുക്കുന്നുണ്ട് നമുക്ക് വില കമ്മി ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ അടുത്ത് നിന്നാണ് ബാക്കി ഉള്ള കച്ചവടക്കാര് കൊണ്ട് പോവുന്നത് ആ നിങ്ങള് വേറെ കടയിൽ പോയി ചോദിച്ച് നോക്ക് ചേച്ചി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കിലോന് വില നമ്മള് ഏറ്റവും കമ്മി ആക്കി കൊടുക്കുന്നത് പിന്നെ നിങ്ങള് നാളെ എടുക്കുവാണേൽ നമ്മള് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരാം ഓ പിന്നെ വാടാമല്ലി ഉണ്ട് വാടാമല്ലി കിലോ നൂറ്റമ്പത് രൂപയാണ് പിന്നെ ജമന്തി ഉണ്ട് ജമന്തി കിലോ എമ്പത് രൂപ ഈ കുട്ടി റോസാപ്പൂവിന് കിലോ എഴുപത് രൂപ പിന്നെ താമര ഉണ്ട് ഏറ്റവും വില കുറവ് അരളി അരളിക്ക് കിലോ അമ്പത് രൂപ ആ അരളി ഏതാ വേണ്ടത് വെള്ള വേണോ റോസ് വേണോ രണ്ടും ആ തെച്ചി തെച്ചി വേണോ തെച്ചി ചെണ്ടുമല്ലി എത്ര കിലോ വേണം ഓ ഓ വലിയ പൂക്കളം പറയുമ്പോൾ ഒരു പത്ത് കിലോ ചെണ്ടുമല്ലി എടുക്കാം ആ പത്ത് കിലോ വേണ്ടി വരും പത്ത് കിലോ ചെണ്ടുമല്ലി അപ്പോൾ നമ്മള് പിച്ചി പിച്ചി അല്ലെ ഇടുന്നത് അപ്പോൾ കമ്മി ആവും പിന്നെ ഓണപ്പൂ ഓണാഘോഷമെന്നൊക്കെ എഴുതണ്ടേ അപ്പോൾ കുറച്ച് പൂ ഒക്കെ എക്സ്ട്രാ വേണ്ടി വരില്ലെ ആ അങ്ങനെ എടുക്കാം അഞ്ച് അഞ്ച് കിലോ വെച്ച് എടുക്കാം മഞ്ഞയും ഓറഞ്ചും ആ വാടാമല്ലി ഒരു അഞ്ച് കിലോ എടുക്കാമല്ലെ വാടാമല്ലി അഞ്ച് കിലോ ജമന്തി വെള്ളയാണ് വേണോ ആ എന്നാൽ വാടാമല്ലി ഒര് അഞ്ച് കിലോ എടുക്കാമല്ലെ അല്ല ജമന്തി അഞ്ച് കിലോ ആ റോസാപ്പൂ എത്ര വേണം ഒരു റോസപ്പൂ മൂന്ന് മൂന്ന് കിലോ മതിയോ ആ മൂന്ന് കിലോ മതി ആവും പിന്നെ താമര വേണം നമ്മുടെ പൂക്കളത്ത് നടുവില് വയ്ക്കാൻ താമര ആ താമര ആ മറ്റെ ഈ റോസാപ്പൂ വേണാ ചേച്ചിമാർക്ക് തലയിൽ വയ്ക്കാൻ വേണ്ടാലെ മുല്ലപ്പൂ ഉണ്ട് മുല്ലപ്പൂ വേണോ

മുല്ലപ്പൂ വേണ്ട തലയിൽ വയ്ക്കാൻ ആർക്കും മുല്ലപ്പൂ വേണ്ടെ ആ മുളം ഇരുപത് രൂപയാണ് ഇപ്പം ഒര് ഉണ്ട എടുക്കുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഒര് ഉണ്ട നൂറ്റമ്പത് രൂപയ്ക്ക് തരാം ഒരു ഉണ്ട എടുക്കാമല്ലെ ഇത് മതിയോ വേറെ എന്തെങ്കിലും വേണോ വേറെ ഇപ്പോൾ ദാ ഈ കാണുന്ന പൂ ഉണ്ട് വാടാമല്ലി ജമന്തി തെച്ചി അരളി ആ നാടൻ പൂ വേണോ ആ ചെമ്പരത്തി കാശിത്തുമ്പ അത് ഇപ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ആ ഒരെണ്ണം തരാം ആ ഇത്ര ഒക്കെ പറഞ്ഞത് അല്ലെ ആ ഈ എന്തൊക്കെ നഷ്ടം എന്നാലും പോട്ടെ

ആ ഇത് ഒരു പത്ത് എണ്ണം എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ് രൂപ ആ ഇപ്പത്തേത് നമ്മള് റൗണ്ട് ആക്കിയില്ലെ ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ആയി മൊത്തത്തില് ഇപ്പോൾ ഒരു മൂവായിരത്തി എഴുന്നൂറ് തരി